കൃഷിയെ ഇപ്പം മൊത്തത്തിൽ കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് തന്നെ ചെയ്യുന്നേന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതൽ ജനിച്ച് വളർന്നക്കാലം തൊട്ട് പരമ്പരഗതമായിട്ട് ഇങ്ങനെ കൃഷി ച്ചെയ്യുന്ന രീതി കണ്ടാണ് വളർന്നു വരുന്നത് അപ്പം നമ്മൾ എത്രയക്കെ ജോലി സാധ്യത കണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിനോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും കാരണം നമ്മളെ നിലനിർത്തിയതും നമ്മളെ വളർത്തിയതും ഒക്കെ ആ ഒരു കൃഷി ഭൂമിയാണ് ആ ഒരു കൃഷി രീതികളുമാണ് അത് നമ്മുടെ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പം നമ്മൾ കൃഷി നശിച്ചാലും വെള്ളപൊക്കം വന്നാലും വരൾച്ച വന്നാലും ഇനി ഉപ്പു വെള്ളം വന്നാലും ഒക്കെ കൃഷിയെ അത് ബാധിക്കുവെങ്കിലും ചിലപ്പോൾ നമുക്ക് നഷ്ട്ടം സംഭവിച്ചിരുന്നാലും നമ്മളത് ചെയ്യാതിരിക്കത്തില്ല കാരണം ഭൂമി എപ്പോഴും ഒരു ജീവനുള്ള വസ്തുവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പം നമ്മൾ കൃഷി പോകട്ടെ ഇപ്പം കൃഷി ഭൂമി വെറുതെയിടാം എന്നു വിചാരിച്ചാൽ അതിൽ നമുക്ക് ഭൂമിക്ക് ജീവനില്ല എന്നൊരു തോന്നലുണ്ട് അപ്പം കൃഷി ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ചെടി അറുത്ത് പിടിച്ച് നിൽക്കുന്നൊരു സ്ഥലവും തരിശായിട്ട് കിടക്കുന്ന ഒരു സ്ഥലവും കാണുമ്പോൾ അത് രണ്ടും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് മറ്റേത് നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുന്ന രീതിയിലാണ് നമ്മൾ ഒരു കൃഷി ചെയ്യുന്നത് അതിപ്പം എന്ത് നട്ടാലും നമ്മളൊരു വിത്ത് പാകി അത് മുളച്ച് ചെടിയായി ആ ചെടി വളർന്നു അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മുടെ പരിചരണോം അതിന് അത്യാവശ്യമാണ് ഓരോ ദിവസവും നേരം വെളുക്കുമ്പം നമ്മൾ ചെന്നു നോക്കുമ്പോൾ അതിന് എന്ത് വളർച്ച മാറ്റമുണ്ടായി അല്ലെങ്കിൽ എന്ത് പ്രോഗ്രസ്സ് ഉണ്ടായെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു ഒരു കുളിർമയാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ നട്ടു പിടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അത് വിളവെടുത്ത് നമ്മളത് നമുക്ക് പാചകത്തിന് അല്ലെൽ നമ്മുടെ ഭക്ഷണ സാധനത്തിൽ ഉൾപെടുത്തുമ്പോൾ നമുക്ക് അതിലും സന്തോഷോം അതിലും രുചിയും ആയിരിക്കും ആ സാധനത്തിന് പിന്നെ അധികമായി കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ വിലക്ക് കൊടുക്കാറുണ്ട് അപ്പം കുറഞ്ഞ കാലയളവിൽ നമുക്ക് കിട്ടുന്ന ഒരുമിച്ച് കിട്ടുന്ന നമ്മുടെ കഷ്ടപ്പാടിൻറ്റെ നമ്മുടെ ഒരു വിയർപ്പിൻറ്റെ വിലയാണത് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും മൂല്യ വർദ്ധിതമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെയ്ക്കും അത് ഭാവിയിലേക്കുള്ള ഒരു കരുതലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കാലാവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടെങ്കിലും ഈ കൃഷിക്കാരെല്ലാം ഈ ജോലി ഉപേക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ നാടിൻറ്റെ അവസ്ഥ എന്തായിരിക്കും ഇത്രയും മനുഷ്യർക്കുള്ള വിഭവങ്ങൾ ഇപ്പം ചെറുതാണെങ്കിലും മിക്ക വീടുകളിലും ഒരു അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടായിരിക്കും കാരണം അതിൽ നിന്ന് അവർ എന്തുചെയ്യും വസ്തു വസ്തുക്കൾ ഉൽപാദിപ്പിച്ച് അവരുടെ ഉപയോഗത്തിന് എടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ മെൻറ്റൽ സ്റ്റാറ്റിസ്ഫാക്ഷനാണ് അപ്പം അതിനെ കാലാവസ്ഥയൊന്നും ബാധിക്കുന്നില്ല കാലാവസ്ഥ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും നമ്മൾ ജീവിക്കുന്നില്ലേ നമ്മൾ മക്കൾ നമ്മുടെ മക്കളെ നോക്കുന്നില്ലേ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ കൊണ്ടു പോകുന്നില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളും അതുപോലെ പൂന്തോട്ടമാണെങ്കിലും പച്ചക്കറിത്തോട്ടമാണെങ്കിലും അല്ലാതുള്ള കൃഷിയാണെങ്കിലും എല്ലാം അതിൽത്തന്നെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മനസ്സുള്ള അതായത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയൊന്നും അവരെ ബാധിക്കുന്നതേ അല്ല